ഇപ്പോൾ മാധ്യമങ്ങളിൽ വിദ്യാഭ്യാസസമ്പ്രദായത്തിലൊക്കെ മലയാളഭാഷയ്ക്ക് അതായത് പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇപ്പോൾ മാധ്യമങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പത്രം അതൊരു മാധ്യമമാണ് ഇപ്പോൾ പത്രത്തിൽ പത്രങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൾ വരണ കൂടുതൽ പത്രങ്ങളും ഇംഗ്ലീഷ് വരുത്തുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ പത്ത് നൂറിലൊരു പത്ത് ശതമാനാണെങ്കിലും ബാക്കിയെല്ലാവരും ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പേരും മലയാളത്തിൽ തന്നെയാണ് പത്രവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പത്രം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ദേശാഭിമാനി ഉണ്ട് മാധ്യമമുണ്ട് മലയാള മനോമര മലയാള മനോരമ ഉണ്ട് മാതൃഭൂമി ഉണ്ട് അങ്ങനെ ഒരുപാട് പത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മലയാളഭാഷയിൽ നമ്മുടെ ഭാഷയിൽ തന്നെയാണ് നമുക്കച്ചടിച്ച് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ ന്യൂസ് ചാനലുകളാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂസ് ചാനലുകളൊക്കെ പറയാമല്ലോ നമുക്ക് ഇപ്പോൾ ടിവിയിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കേരളീയർ കൂടുതൽ മലയാളത്തിലാണ് കൂടുതൽ മലയാള അതായത് ഇപ്പോൾ നമുക്ക് ട്വന്റി ഫോർ ന്യൂസുണ്ട് പിന്നെ അതുപോലെത്തന്നെ മാതൃഭൂമി ന്യൂസുണ്ട് മലയാള മനോരമ ന്യൂസുണ്ട് പിന്നെ അതുപോലെത്തന്നെ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസുണ്ട് ജയ്ഹിന്ദ് ഉണ്ട് അങ്ങനെ ഒരുപാട് വാർത്താചാനലുകളുണ്ട് അതൊക്കെ നമ്മള് മലയാളത്തിൽ തന്നെയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മലയാ അതായത് ഇങ്ങനെ മാധ്യമങ്ങളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് മലയാള ഭാഷ ഉണ്ട് കൂടുതലായിട്ടും പ്രാതിനിധ്യം ഒക്കെ നൽകുന്നുണ്ട് നല്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്